ആ ആ സാറേ ഇത് സാറേ ഇതിൽ ഉണ്ട് എല്ലാം

ഇതാ സാറേ ഇത് ഇതിൽ എല്ലാം ഉണ്ട് ആ പൊല്യൂഷൻ പൊല്യൂഷൻ എടുത്തതായിരുന്നല്ലോ സാറേ ഒരു ആ ഒരു വർഷത്തേക്കല്ലേ സാറേ

ആ എടുക്കാം എടുക്കാം ആ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് ഇന്നാ ലൈസൻസ് ഇതാ ഈ ലൈസൻസ് ലൈസൻസ് അങ്ങനെ പുതുക്കേണ്ടി വരുമോ സാറേ പത്ത് വർഷം അല്ല നമ്മൾ അപ്പം ഇനിയും ഇത് വണ്ടി എല്ലാം എച്ചും ഇത് എട്ടും ഒക്കെ എടുത്ത് കാണിക്കണോ അല്ല സാറേ നമ്മുടെ ലൈസൻസ് എടുത്താൽ പിന്നെ നമുക്കത് ലൈഫ് ലോങ്ങ് കിട്ടത്തില്ലേ പത്ത് വർഷം അല്ലേ അപ്പം ഇനി പുതുക്കി കഴിഞ്ഞാലും ആർ ടി ഓഫീസിൽ ആ ആ അവിടെ ഫോം നമുക്ക് അവിടെ ചെന്നാൽ മതിയല്ലോ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്ത് ഫീസും അടച്ചുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പോസ്റ്റിൽ വരുമോ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഇതിപ്പം നമ്മൾ ഇത് പുതുക്കിയില്ലെങ്കിൽ നമുക്ക് എന്താണ് സാറേ പ്രശ്നം വരുന്നത് ആ ഓക്കെ ഓക്കെ ആ ചെയ്യാം ചെയ്യാം സാറേ ആ ശരി ശരി ഓക്കെ താങ്ക് യു